ഞാനൊരു ക്യാപിച്ചീനോ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് നല്ല ചൂടോടുകൂടെ എനിക്ക് കൈയിൽ കിട്ടണം അതുകൊണ്ട്തന്നെ നിങ്ങളുടെ പാക്കേജിങ് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യണം എനിക്ക് എൻ്റെ കയ്യിൽ എത്തുന്ന എത്തി അത് കുടിക്കുമ്പോൾ ഒരു നല്ലൊരു ചൂട് ചൂട് വേണം അതുകൊണ്ട് തന്നെ പാക്കേജിങ്ങിനു വേണ്ട വേണ്ട കാര്യങ്ങൾ അഥവാ ചൂട് കുറയാതിരിക്കാൻ വേണ്ടീട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്നു ചെയ്യാൻ പറ്റുമോ